എൻ്റെ കുറേ സുഹൃത്തുക്കൾ ബാങ്കിങ് മേഖലയിൽ മുൻഗണന കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതിൻറ്റെ ഒന്നാമത്തെ കാരണം ബാങ്കിങ് ഇന്ത്യയിൽ ഇപ്പോൾ വളർന്ന് കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അതിലെ ജോലി നമുക്ക് എപ്പഴും ഒരു സുരക്ഷിതമായ ജോലി ആയിരിക്കും കാരണം അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ട ചെലവുകളും ഒക്കെ നമുക്ക് കിട്ടും ചെലവിനുള്ള പൈസ നമക്ക് കിട്ടും അതേപോലെ തന്നെ നമ്മടെ ജോലി അത്യാവശ്യം പെട്ടന്നൊന്നും അങ്ങനെ പോവാൻ സാധ്യതയില്ല കാരണം ഇതൊരു ഫിക്സഡ് ജോബ് ആയിരിക്കും പിന്നെ കുറെ നല്ല ബാങ്കുകളിൽ നമുക്ക് നല്ലൊരു ഇൻകം കിട്ടുന്നതാണ് പിന്നെ ബാങ്കിങ് മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ഉള്ളൊരു ജോലി എന്ന് പറയുന്നത് അവിടുത്തെ അക്കൗണ്ടൻറ്റ് ആണ് അത് അത്യാവശ്യം അത്യാവശ്യം പാടാണ് ആ ഒരു ജോബ് കിട്ടാൻ അത് പക്ഷെ അതിന് ഏറ്റവും നല്ലൊരു മുൻഗണനയും അതിൻ്റെ ശമ്പളം അധികമാണ് പക്ഷേ അതേപോലെ തന്നെ പണി കൊറേ കൂടുതലുമാണ്